പണ്ടൊക്കെ അതായത് ഒരു പത്തു വർഷം മുൻപൊക്കെ ഞങ്ങളുടെ ഫാമിലി അത്ര ഫിനാൻഷ്യലി സ്റ്റേബിളൊന്നും അല്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇൻ്റക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്യാസ് സ്റ്റൗ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ഗ്യാസ്റ്റൗവിൻ്റെ ഗ്യാസ് തീർന്നുപോയി അപ്പോൾ ഭക്ഷണം ഒക്കെ പാകം ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അടുപ്പിൽ വയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ആണ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വറവലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാദാരണ നമ്മൾ ഗ്യാസിൽ വച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗാസിലാണല്ലോ പാചകം ഒക്കെ ചെയ്യാറ് അപ്പോൾ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല നമുക്ക് ആ വേണ്ട രീതിയിൽ നമുക്ക് ആവശ്യത്തിന് തീ വരും അപ്പോൾ നമുക്ക് പാചകം ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെ എളുപ്പമായിരുന്നു ആ കാര്യങ്ങളൊക്കെ പക്ഷെ അടുപ്പിൽ ചെയ്യുന്ന സമയത്ത് അതായത് ഡയറക്ട് നമ്മൾ വിറകൊക്കെ കത്തിച്ച് ചെയ്യുന്ന സമയത്ത് വിറക് കൊണ്ടുവരണം വിറക് കൊണ്ടുവന്ന് അതു മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം കത്തിച്ചതിന് ശേഷം ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുകയും തീയുമൊക്കെ കൊള്ളേണ്ടി വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ ആയിട്ട് ഈ കാലത്തൊക്കെ ഇൻ്റക്ഷനിലേക്കൊക്കെ ആയി ഇൻ്റക്ഷനിലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് തീയിൻ്റെ കാര്യമേ അറിയേണ്ട ആവശ്യമില്ല വളരേ എളുപ്പമായി ഇപ്പോൾ കാര്യങ്ങളൊക്കെ പക്ഷെ സ്റ്റൗവ്വിലാണെങ്കിൽക്കൂടി എളുപ്പമായിരുന്നു പക്ഷെ അതിനേക്കാളും എളുപ്പം ആണ് ഇൻ്റക്ഷൻ ഇപ്പോൾ നിങ്ങൾ സാധാരണ സ്റ്റൗവ്വിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നപോലെ ഗ്യാസ് ഓൺ ആക്കാം ഓഫ് ആക്കാം അത് കുറയ്ക്കാം കൂട്ടാം ഒക്കെ ചെയ്യാം വേറെ എക്സ്റ്റേണലായിട്ട് നമ്മൾ ആ ഒരു വിറക് കൊണ്ടുവന്ന് കത്തിച്ച് അത് അങ്ങനേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അന്ന് ചെയ്ത സമയത്ത് വിറക് കത്തിക്കണം അത് മണ്ണണ്ണ ഒഴിച്ചാലാണത് കത്തുകയുള്ളൂ അതുപോലെ അതൊന്ന് കത്തിപിടിക്കാൻ വേണ്ടിയിട്ട് ഓല കൊണ്ടുവന്നിടണം അല്ലെങ്കിൽ ന്യൂസ്പേപ്പറ് കത്തിച്ചിട്ടിടണം അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തീയ്യ് തീ തീനാളങ്ങളൊക്കെ തട്ടുന്ന സമയത്ത് നമക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ഇതൊക്കെയാണ് അനുഭവങ്ങൾ